ആ ഡോക്ടർ അല്ലേ ആ എനിക്ക് ചെറുതായിട്ട് പനിയും ജലദോഷവും ആ വയർ വേദനയൊക്കെ ഉണ്ടായിരുന്നു ഓ എൻ്റെ പേര് അരുൺ ആണ് ആ അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയില്ല ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഭയങ്കര വയർ വേദന ആണ് ആ എനിക്ക് ഇന്നലയൊന്ന് ചെറുതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനിപ്പോൾ രാത്രി കെട ഇപ്പോൾ ഞാൻ കിടക്കുവായിരുന്നു കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനീ വയർ വേദന എടുത്തിട്ട് ചാടി എണീറ്റ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല ഭയങ്കരമായിട്ട് വയർ വേദനയാണ് ഞാനിപ്പോൾ ചോറും ബീഫ് ഉണ്ടായിരുന്നു അപ്പോൾ ബീഫും ഇതൊക്കെയാണ് കഴിച്ചത് പക്ഷേ ഇന്നലെ ഞാനങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ എനിക്ക് വയർ വേദന ഉണ്ടായിരുന്നു

ആ ചോറും ബീഫും ആണ് കഴിച്ചത് ഇന്നലെയും ഇന്നലെ നമ്മൾ ചോറും സാദാ ചോറും സാദാ സാമ്പാർ കറിയും മാത്രമാണ് ഞാൻ കഴിച്ചത് പക്ഷേ ഇന്നലെ എനിക്ക് നല്ല രീതിയിൽ വയർ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് തോന്നി ആ ഇല്ല മിനിഞ്ഞാന്നൊന്നും കഴിച്ചിട്ടില്ല ഇന്ന് മാത്രമാണ് ഇപ്പം ബീഫ് കഴിച്ചത് ആ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസമായി ഇല്ല ഇല്ല ഇന്ന് ഞാനിപ്പോൾ ഇല്ല ഇന്ന് ഞാൻ രാവിലെ മേടിച്ച് കൊണ്ട് വന്നതാണ് ആ ഇന്ന് തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ് കഴിച്ചത് അല്ല അല്ല ഞാനിപ്പോൾ ആ ഇല്ല ഞാൻ ഇടക്കിടക്ക് കഴിക്കാറുണ്ട് എനിക്കങ്ങനെ ബീഫ് കഴിച്ചിട്ട് ഇതേവരെ അങ്ങനെ വയർ വേദനയൊന്നും അങ്ങനെ വന്നിട്ടില്ല ഇല്ല ഇല്ല ഇത് ഇതിന് മുന്നെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല ഇല്ല ആ അടിവയർ വല്ലാണ്ടൊരു വേദനയാണ് ഉള്ളത് ആ ര ഇല്ല രണ്ട് സൈഡുമായിട്ട് എനിക്ക് വേദന ഉണ്ട് രണ്ട് സൈഡിലും ഭയങ്കര വേദനയാണ് നടുവേദന ചെറുതായിട്ടുണ്ട്

മൂത്രത്തിൽ കടച്ചിലായിരിക്കുമല്ലേ അപ്പം അതിനെന്തെങ്കിലും സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരുവോ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്നാൽ വരാൻ വേണ്ടിയിട്ടാണോ നാളെ വന്നാൽ മതിയോ ഇപ്പോൾ ഞാൻ പാരസെറ്റമോൾ കഴിക്കുന്നത് കൊണ്ട് കുഴപ്പം ഉണ്ടോ ഓ പി ടൈം ആണ് പാരാസെറ്റമോൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ നാളെ വരാം എന്നാൽ